സ്കൂളുകളിലെ ഇഷ്ടപ്പെട്ട വിഷയം എന്തെന്ന് സ്കൂളിലെ വിഷയം സ്കൂളിലെ ഇഷ്ടപ്പെട്ട വിഷയം എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാവുമല്ലോ അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലും തൻ്റെ ഇഷ്ടങ്ങൾ വിഷയങ്ങളും ഉണ്ടാവുക അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചുറ്റുപാടും ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അനുസരിച്ചിരിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടവിഷയങ്ങൾ അവ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഇഷ്ടവിഷയം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ ജീ ക്കെ ജി ക്കെ എന്നുള്ള വിഷയമാണ് കാരണം അതിൽ നമുക്ക് ധാരാളം ബാക്കിയുള്ള പല വിഷയങ്ങളായാലും അതിൽ ഒന്നിനെ പറ്റി മാത്രം ചർച്ച ചെയ്തു പോകുന്ന ഒരു അല്ലെങ്കിൽ പല കഥകൾ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ പല രീതിയിലുള്ള കണക്കുകൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറുകൾ ചർച്ച ചെയ്യുന്നതായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജി കെ എന്നുള്ളതിൽ പല കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിൽ നമുക്ക് ഓരോന്നിലും വ്യത്യസ്തത കാണാൻ സാധിക്കും ബാക്കിയുള്ളതെല്ലാം ഏകദേശം പല കാര്യങ്ങളും കോമണായി ഒരുപോലെ കാണുന്നതായിരിക്കും ജി കെ യിൽ പലതിലും പല വ്യത്യസ്തങ്ങളും വ്യത്യസ്തകളും നമുക്ക് കാണാൻ സാധിക്കും ജി കെ യിലൂടെ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഓരോ ജീ ക്കെ യുടെ ഓരോ കാര്യങ്ങളിലും ഒരു രണ്ട് രണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളുടെ അറിവാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രശ്നമൊന്നുമില്ല അതുവളരെ രസകരമായി കൊണ്ട് നമുക്ക് ജി കെ ഒരു ഫുട്ബോൾപരമായ കാര്യങ്ങൾ നമുക്ക് കായികത്തോട് താല്പര്യമുള്ള ഫുട്ബോൾപരമായ കാര്യങ്ങൾ വരുന്നു ഇനിയിപ്പോൾ കുറച്ച് സയൻറിഫിക്കായ കാര്യങ്ങളും ജി ക്കെ യിൽ വരും അല്ലെങ്കിൽ നമുക്ക് രസമുള്ള എല്ലാ കാര്യങ്ങളും ജി ക്കെ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് അത് എന്നോട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു ഏറ്റവും ഒരു പ്രയാസമേറിയ വിഷയമായി ഏതായിരുന്നു വെച്ചാൽ ഏതൊരു പല കുട്ടികളിലെയും പോലെ മാത്സ് കണക്കായിരുന്നു എനിക്ക് ഏറ്റോവും ഇഷ്ടം കാരണം പണ്ട് എന്നെ പഠപ്പിച്ച ഒരു സ്കൂൾ ടീച്ചറുണ്ടായിരുന്നു ഒരു എന്ത് കണക്ക് കൊണ്ട് കണക്ക് ബുക്ക് കൊണ്ട് നമ്മോട് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പറയും അല്ലെങ്കിൽ എല്ലാം നമുക്ക് അറിയാത്ത പല ഈ കണക്കുകളും പറയും എന്നിട്ട് എന്ത് ഹോംവർക്കുകൾ തരുന്നു അങ്ങനെയുള്ള ധാരാളം രസകരമല്ലാത്ത വളരെയധികം മോശകരമായ മോശകരമല്ല കാണുമ്പോൾ ആ കാലങ്ങളിൽ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു കണക്ക് എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നീട് സ്കൂൾ പഠന സന്തോഷമുള്ള ഇനി ഓർമ്മ പങ്ക് വെക്കാമെന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഓർമ്മകളിലല്ല ഓർമ്മകൾ സ്കൂൾ പഠനകാലത്ത് എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്ക് രസകരമായ ഓർമ്മകളാണ് സ്കൂൾ പഠന കാലത്ത് സ്കൂൾ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം നമുക്ക് നമുക്ക് ലഭിക്കുന്ന ഓരോ തല്ലുകളും അല്ലെങ്കിൽ നമ്മുടെ രസകരമായ ഓർമ്മകളാണ് എനിക്ക് സ്കൂൾ പഠന കാലത്ത് എനിക്ക് ഓർക്കാവുന്നത് സന്തോഷകരമായ കാര്യങ്ങളല്ല അതിൽ പെട്ടതാണ് നാം എന്ത് ഓടി നടക്കുന്ന എന്ന വീണതിന് സ്കൂള്നിന്ന് തല്ല് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽനിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം അങ്ങനെ സ്കൂള് പഠനകാലത്തുള്ള ധാരാളം രസകരമായ സംഭവങ്ങളുണ്ട് പിന്നീട് ഞാൻ പറയാവുന്നതാണ് മറ്റു പല കാര്യങ്ങളും അങ്ങനെ സ്കൂൾ പഠനകാലത്ത് ധാരാളം വിഷയങ്ങളും ഓർമ്മകളും എല്ലാമുണ്ട്